നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നൃത്ത രൂപങ്ങളുണ്ട് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം അങ്ങനെ ഒരുപാട് ക്ലാസ്സിക്കൽ നൃത്ത രൂപങ്ങള് ഉണ്ട് വെസ്റ്റേണ് സ്റ്റൈല് നൃത്ത രൂപങ്ങളുണ്ട് തീര്ച്ചയായും ഈ രൂപങ്ങളൊക്കെ ആ ഒരു സാംസ്കാരികമായിട്ട് ഒരുപാട് സ്വാധീനിച്ച നൃത്ത രൂപങ്ങളാണ് ഒരുപാട് നൃത്ത രൂപങ്ങള് ആ ഒരു പ്രദേശത്തെ ഓരോ പ്രത്യേകതകള്ക്കനുസരിച്ചുള്ള ഓരോ നൃത്ത രൂപങ്ങള് ഉണ്ട് ആ നൃത്ത രൂപങ്ങള് എല്ലാം ആ ഒരു പ്രാദേശികമായി അവിടുത്തെ ആള്ക്കാര് അല്ലെങ്കില് അവിടുത്തെ ജനങ്ങള് അത് കളിക്കുന്ന നൃത്ത രൂപങ്ങളായിരിക്കാം പല ശൈലിയിലുള്ള നൃത്ത രൂപങ്ങളുടെ വികസനത്തിന് അവിടുത്തെ സാംസ്കാരിക പരമായിട്ടുള്ള സ്വാധീനങ്ങള് ഒരുപാട് ഉണ്ട് കാരണം പല ശൈലിയിലുള്ള പല രീതിയിലുള്ള നൃത്ത രൂപങ്ങളാണ് പല സ്ഥലങ്ങളില് നമുക്ക് കാണാന് സാധിക്കുക അതിന്റെ വികസനത്തിന് അവിടുത്തെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സ്വാധീനം വരാറുണ്ട്